ഡയറികൾ എഴുതുന്ന ശീലമുണ്ട് അത് എഴുതുമ്പോളെന്നെ സംബന്ധിച്ച കാര്യങ്ങൾ എനിക്കത് ഓരോ ദിവസത്തെ കാര്യങ്ങളും അവലോകനം ചെയ്യാനും അതിൻ്റെ എന്താണ് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാനും ചെയ്യുന്നുണ്ട് അത് എനിക്ക് അനുഗ്രഹമാണ് അതിൻ്റെ ഒരു കാര്യം എഴുതിക്കഴിയുമ്പോൾ അത് നമുക്ക് വളരെ ആശ്വാസകരമായിട്ടാണ് തോന്നുന്നത് എന്ത് കാര്യങ്ങളും നമുക്ക് നേരിടുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ഡയറിക്കകത്ത് കുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആശ്വാസം വളരെ വലുതാണ് അത് ചെയ്തു കഴിയുമ്പോൾ ഞാൻ മലയാളത്തിലാണ് കൂടുതലായിട്ട് എഴുതാറുള്ളത് നേരത്തെ ഇംഗ്ലീഷിൽ ചെയ്യുമായിരുന്നു ഇപ്പോൾ പിന്നീട് മലയാളത്തിലോട്ട് ഫോക്കസ് ചെയ്തു എഴുതിക്കഴിയുമ്പോൾ നമ്മുടെ ഭാഷ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കാറുണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ വാക്കുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അത് എഴുതിക്കഴിയുമ്പോൾ പുതിയൊരു ഊർജ്ജം കൈവരുന്നതായിട്ട് തോന്നാറുണ്ട് അങ്ങനെ ഭാഷ ഭാഷയുടെ ഒരൂ മെച്ചപ്പെടുത്തലും നടത്തുന്നുണ്ട് ഡയറി എഴുതുന്നതിലൂടെ നമുക്കൊരു ആ ആത്മസംതൃപ്തി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണെനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ എഴുതുമ്പോൾ ആ ഒരു ഊർജ്ജവും ശ്രദ്ധയും നിലനിർത്തുന്നത്തിന് നമ്മൾ ചെയ്യുന്നത് വളരെ മെച്ചപ്പെട്ട ഭാഷ ഉൾപ്പെടുത്തി എഴുതാൻ ശ്രമിക്കുന്നുവെന്നുള്ളതാണ് അത് ഓരോ ദിവസവും ഉണ്ടാകുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല സന്തോഷങ്ങളും ഒക്കെ ഞാൻ കുറിച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട് അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിത്തന്നെ കൊണ്ടുപോകുന്നുണ്ട് അതിലൂടെ എനിക്ക് വലിയൊരു ഊർജ്ജം കൈവരുന്നുണ്ട് കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിതം കൊണ്ട് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്നുള്ളത് എനിക്ക് മനസിലാക്കിയെടുക്കാൻ സാധിക്കുന്നു അതോടൊപ്പം ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തികൾ ഗുണകരമാകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താനും എനിക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട് എന്നും ഡയറി എഴുതുന്നതിലൂടെ പരിജ്ഞാനം കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നമുക്ക് വിലയിരുത്താനും ഇതിലൂടെ സാധിക്കുന്നുണ്ട് നല്ലൊരു ഗുണമാണ് ഡയറി എഴുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഡയറി എഴുതുന്നത് ശീലമാക്കണമെന്നാണ് എൻ്റെ ഒരഭിപ്രായം അതിലൂടെ നല്ലൊരു ഗുണമാണ്